ആരോഗ്യ സംരക്ഷണത്തിന് ഗതാഗത സൗകര്യം അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പം അതിൻ്റെ ഗതാഗത സൗകര്യത്തിൻ്റെ അഭാവം മൂലം ആരോഗ്യം ത്തിൻ്റെ പ്രശ്നമെന്നുവെച്ചാൽ നമുക്കിപ്പോൾ അത്യാസന്ന നിലയിലുള്ള എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്കിപ്പോൾ വണ്ടി പെട്ടെന്നു കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്താൻ നമുക്ക് ലേറ്റാകും അപ്പോൾ എന്നുവെച്ചാലത് ഒരു ആളുടെ ജീവനു തന്നെ ഭീഷണിയാകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ വണ്ടിയൊക്കെ വരൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നു തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അതിനുവേണ്ട ചികിത്സ നടത്താൻ കഴിയും അല്ല വണ്ടി കിട്ടാൻ കുറച്ചു ലേറ്റ് ആകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായും ആ ഒരു ജീവൻ്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാം കഴിഞ്ഞില്ലയെന്നൊക്കെ വരും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടുമുറ്റത്തേക്ക് വണ്ടി വരാത്ത ഒരു അവസ്ഥ ഇപ്പോൾ ഒരു വയലിൻ്റെ അപ്പുറത്താണ് റോഡുള്ളത് എന്നുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ ഒരു കിടപ്പിലായ ഒരു പേഷ്യൻറ്റിനിപ്പോൾ ആ റോഡ് വരെ എത്തിക്കാൻ വേണ്ടിക്ക് ഒരു മൂന്നാലാളുടെ സഹായമൊക്കെ വേണ്ടി വരും അപ്പം എന്നുവെച്ചാൽ വീട്ടുമുറ്റത്തേക്ക് വണ്ടി എത്തുന്ന ഒരു ഉള്ളത് നമുക്ക് ഒരു ആരോഗ്യ രംഗത്ത് അത്യാവശ്യമുള്ളതും നമുക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് ആകുന്നതും ഉള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെയെന്നുവെച്ചാൽ നമ്മളൊരു പ്രദേശത്തു നിന്ന് വെച്ചാൽ അടുത്തുള്ളതെന്നു വെച്ചാൽ ഹെൽത്ത് സെൻ്ററുകൾ മാത്രമാണ് വലിയ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമുക്ക് അടുത്തില്ല കാരണം നമ്മൾ കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അടുത്തുള്ളത് ഹെൽത്ത് സെൻ്റർ ആയതുകൊണ്ട് നമുക്കിപ്പം പ്രാഥമിക ചികിത്സക്ക് മാത്രമേ നമുക്ക് ഹെൽത്ത് സെൻ്റർ തന്നെ ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ കാരണം അവിടെ അതിനുള്ള ഒരു ഫെസിലിറ്റീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്കതിനെക്കാട്ടും കുടുതലുള്ള ഒരു അത്യാവശ്യം ഒരു അവസ്ഥ വേണ്ടിക്കല് നമ്മൾ കുറച്ചു ദൂരെയുള്ള ഒരു അരമണിക്കൂറോളം പോയിട്ട് ടൗണിൽ എത്തേണ്ട രീതിയിലുള്ള ഹോസ്പിറ്റൽ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ പ്രദേശത്തിലേക്ക് ഉള്ളത്